എനിക്ക് മലയാളത്തിലേറ്റവും പ്രിയപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ് മടിയൻ മല ചുമക്കും മടിയൻ മല ചുമക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അതായത് ഒരു ജോലി തന്ന് കഴിഞ്ഞാൽ ആ ജോലിയിൽ നമ്മൾ കൃത്യമായി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ കൂടുതൽ ഓരോ ദിവസം കഴിയുംതോറും കൂടിക്കൂടി വരികയും നമുക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടിലോട്ട് കൊണ്ടെത്തിക്കുകയും ചെയ്യും അതായത് ഒരു കുട്ടിക്ക് പഠനത്തിനായിട്ട് നമ്മളോരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെയാണ് പഠിക്കാനായിട്ട് കൊടുക്കുന്നത് ആ കുട്ടി പഠിക്കാതിരിക്കുകയും അവസാനം പരീക്ഷയുടെ സമയം ആവുമ്പോൾ കുട്ടി പഠിക്കാനെടുക്കുമ്പോൾ കുട്ടിക്ക് ആ ഒരു പോർഷൻ കമ്പ്ലീറ്റ് ഒരു ടെക്സ്റ്റ് മുഴുവൻ പഠിക്കേണ്ടി വരുന്നു ആ ഒരു അവസരം നമ്മൾ നോക്കുമ്പോൾ മടിയൻ മല ചുമക്കും എന്ന് പറയുന്നതിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഈ പഴഞ്ചൊല്ല് ഏറ്റവും കൂടുതലായിട്ടും വരുന്നത് ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അതുപോലെത്തന്നെ തൊഴിൽ മേഖലയിലുമാണ് കൂടുതലായിട്ടും ഈ നമ്മുടെ ഈ പഴഞ്ചൊല്ല് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്